ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന പ്രൊഡക്ട് വളരെ നല്ലതാണ് ആ ഹെഡ്ഫോണ് നല്ല സൗണ്ട് ക്ലാരിറ്റിയുണ്ട് നല്ല സൗണ്ടാണ് കേട്ടുകൊണ്ട് ഇരിക്കുമ്പം വേറെ നോയ്സൊന്നും നമുക്ക് കേൾക്കാറില്ല നല്ല കറക്ടായിട്ട് കേൾക്കാൻ പറ്റാറുണ്ട് നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല നല്ല പ്രൊഡക്ടായിരുന്നു സൗണ്ട് ക്ലാരിറ്റി അടിപൊളി ആയിരുന്നു കേൾക്കുമ്പോൾ ഒരു സോങ്ങൊക്കെ കേട്ടുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് നല്ല ക്ലാരിറ്റിയിൽ ക്ലിയർ ആയിട്ടും കേൾക്കാൻ പറ്റും ഒരു ഇരപ്പ് സൗണ്ടുകളൊ ഒന്നും ഉണ്ടാവാറില്ല നല്ല സംഭവമാണ് നല്ല പ്രൊഡക്ടാണ്